ഹലോ വാണി ചേച്ചി അല്ലെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ഒരു ആളാണ് അപ്പോൾ എൻ്റെയൊരു ബാഗ് അവിടെ വെച്ച് ആ നഷ് മറന്നുപോയി ആ അവിടെയെങ്ങാനും കിട്ടിയായിരുന്നോ റോഷൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ബ്ലാക്ക് കളർ ആ എൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരെണ്ണം ഉണ്ടായിരുന്നേ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പോയത് അപ്പോൾ ഞാനിനി എപ്പോഴാണ് തിരിച്ച് വിളിക്കേണ്ടത് എപ്പോഴാണ് അതിലൊരു കീ ചെയിൻ ഇട്ടിട്ടുണ്ട് ആ ഞാൻ അങ്ങോട്ട് വരാം എത്ര മണി വരെ കാണും അവിടെ എന്നാൽ ആ ചെ അവരെ ഏൽപ്പിച്ചാൽ മതി ഞാൻ വന്നുകൊള്ളാം ആ അതിൻ്റെ ആവശ്യമില്ല അടുത്തയാളിൻ്റെ നമ്പർ എനിക്ക് തന്നാൽ മതി ഞാനവിടെ വരുമ്പോൾ വിളിച്ചുകൊള്ളാം വിളിച്ചിട്ട് വാങ്ങിച്ചോളാം ആ ഇത് അതെ അതെ അതെ മതി മതി ഓക്കേ താങ്ക് യൂ